എന്താണ് എടാ ആ എങ്ങനെയാണ് ഓൾഡ് ടൈപ്പ് ആണോ പഴയ ആ കാലത്ത് ഉണ്ടായിരുന്നത് പോലത്തെ

ഓ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നിനക്ക് എന്തിനാണ് എന്താണ് എടാ കാര്യം താങ്ക് യൂ ആ ആ ഓ ഓക്കെ

ആ ഇവർക്ക് പറ്റിയ പോലെ ബീച്ചിൻ്റെ സൈഡിൽ ഒക്കെ അടിപൊളി സ്ഥലങ്ങൾ ഉണ്ട് നിനക്ക് വേണമെങ്കിൽ നാളെ ഒന്ന് പോയി നോക്കാം എന്നത്തേക്കാണ് അവർ വരുന്നത്

ഓക്കെ ആ എന്നാൽ നമുക്ക് ഈ നീ ഫ്രീ ആണെങ്കിൽ വാ നമുക്ക് എന്നാൽ ഒന്ന് പോയി നോക്കിയിട്ട് വരാം

ഓ നീ എപ്പോഴാണ് സമയം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി നമുക്ക് വേണമെങ്കിൽ പോയി നോക്കാം എൻ്റെ കസ്റ്റഡിയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഉണ്ട് അപ്പം നിനക്ക് അത് പറ്റുവോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ നമ്മൾ ഇപ്പം നിൻ്റെ ഒരു കാഴ്ചപ്പാട് ആയിരിക്കില്ലല്ലോ എനിക്ക് അപ്പം നീ നീ ഫ്രീ ആവുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി നമുക്ക് രണ്ട് പേർക്കുംകൂടെ പോയി നോക്കാം അവിടുത്തെ നൈറ്റ് എന്ന് ഒക്കെ പറഞ്ഞാൽ നിനക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം വലിയ മനസ്സിലാവില്ല പിന്നെ അവിടത്ത സെറ്റ് ആംബിയൻസും കാര്യങ്ങളൊക്കെ

ആ എന്നാൽ നീ ഇപ്പം പോര് നമുക്ക് എന്നാൽ പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം സൈറ്റ് വിഷയമാണോ റേറ്റ് ഓക്കെ നമുക്ക് അത് നേരിട്ട് സംസാരിക്കാം അവരും ആയിട്ട് നേരിട്ട് സംസാരിക്കാം പിന്നെ എനിക്ക് പരിചയം ഉള്ളവർ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അല്ലാണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം എന്തായാലും നീ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങ് ആ നീ വിളിക്ക് എന്നാൽ നമുക്ക് രണ്ട് പേർക്കും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് നിനക്ക് പറ്റുമെങ്കിൽ നമുക്ക് അത് ബുക്ക് ചെയ്തിട്ട് വരാം ആ എടാ എന്നാൽ നീ വാ മ്